പണ്ട് ചെറുതായിരുന്നപ്പോൾ ഞാൻ വാൽ നക്ഷത്രത്തെ കണ്ടിട്ടുണ്ട് ഒരു തവണ അമ്മയോടൊപ്പം നിന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വാൽ നക്ഷത്രത്തെ കണ്ടത് അത് അധികം നേരമൊന്നും കാണാൻ പറ്റിയില്ല കാരണം അതൊരു നിമിഷ നേരത്തേക്ക് മാത്രമെ അതിനെ കാണാൻ പറ്റിയുള്ളു കാരണം അത് പെട്ടെന്ന് നമ്മുടെ അടുത്ത് നിന്ന് പാസ് ചെയ്ത് പോവും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അത് ആകാശത്തിൽ കൂടെ പാസ് ച യ്ത് പോകും അങ്ങനെയാണ് ഞാൻ കണ്ടേക്കണത് അപ്പം തന്നെ ഒരു ആഗ്രഹം മനസിൽ വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടക്കും എന്ന് പറഞ്ഞത് അമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം അന്ന് ചെറുതായത് കൊണ്ട് എനിക്ക് ഒരു സൈക്കിൾ വേണം അതായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം തന്നെ എനിക്ക് ഒരു സൈക്കിൾ വേണം എന്നാണ് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചത് തന്നെ നടക്കുമോ ഇല്ലയോ എന്നറിയില്ലായിരുന്നു ചെറുതല്ലേ അന്ന് അങ്ങനെ ആഗ്രഹിച്ചു അത് നടന്നോ ഇല്ലയോ എന്നൊന്നുമറിയില്ല ചെറുതായിരുന്നത് കൊണ്ട് അമ്മ പറഞ്ഞത് അനുസരിച്ച് അങ്ങനെ ഒരു ഇതായിരുന്നു പിന്നെ പിന്നേ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വാൽനക്ഷത്രത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ ഉൽക്കാവർഷം അതൊന്നും ഞാൻ കണ്ടിട്ടില്ല ആകെ വാൽ നക്ഷത്രത്തെ മാത്രമേ കണ്ടിട്ടുള്ളു